നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള മൊത്തത്തിലുള്ള വളർച്ചയെ നല്ല രീതീയിൽ സ്വാധീനിക്കുന്നതാണ് കളികൾ മുമ്പൊക്കേയെന്ന് പറയുമ്പോൾ എല്ലാവരും നന്നായിട്ട് അദ്ധ്വാനിക്കും മുമ്പത്തെ ആളുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ അദ്ധ്വാനം വളരെ കമ്മിയാണ് അപ്പം അവർക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങളും മെയ്നായിട്ട് ജീവിത ശൈലി രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാനുള്ള ഈ ശരീരം അനങ്ങാത്തതു കൊണ്ട് കാരണം ഉണ്ട് ഇപ്പം അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ദിവസവും നമ്മൾ വ്യായാമത്തിൽ ഏർപ്പെടുക ഓരോ തരത്തിലുള്ള കളികൾ മറ്റേ ഫുട് ബോൾ ബാഡ്മിൻറ്റൺ എന്നിതു പോലെയുള്ള കളികളിൽ ഏർപ്പെട്ടാൽ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും അതുപോലെ ജീവിത നിലവാരം നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും